എപ്പോഴും ഒന്നുമില്ലെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ എഴുതാറുണ്ട് സിനിമകളുടെ തിരക്കഥ എഴുതാനാണ് എനിക്കേറ്റവും ഇഷ്ടം സിനിമ എഴുതി നോക്കാൻ എൻ്റെ മനസ്സിലുള്ള സിനിമ സീനുകൾ എഴുതി നോക്കാനും അത് വെറുതെ വായിച്ചിരിക്കാനുമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ദിനചര്യങ്ങളെന്നില്ലാതെ ഞാനങ്ങനെ എല്ലാ ദിവസമൊന്നും എഴുതാറില്ലെങ്കിലും എഴുതാൻ തോന്നുമ്പോഴൊക്കെ എഴുതാറുണ്ട് ഇതിനായി പ്രത്യേകം സമയം കണ്ടെത്തേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എഴുതാൻ തോന്നുമ്പോൾ അങ്ങ് എഴുതും പലപ്പോഴും എഴുത്തുകാർ ഇങ്ങനെ സമയം കണ്ടെത്തുന്നത് പ്രത്യേക സമയം വെച്ച് കൊണ്ടുതന്നെ ഇന്നേ ദിവസം എഴുതണം ഇന്നേ സമയം കൊണ്ട് എഴുതിത്തീർക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുകയും ഉണ്ടാക്കുകയും അങ്ങനെയൊരു സംഭവം ഞാനെവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും ചെയ്യാറില്ല എനിക്ക് സമയമുള്ളപ്പോൾ എനിക്ക് സമയമുണ്ടെന്നും എനിക്ക് തോന്നുമ്പോൾ ആണ് ഞാൻ എഴുതാറുള്ളത്